നിങ്ങൾ സ്ഥലം വാങ്ങാച്ചാൽ വെള്ളായണി നല്ല ഒരു സ്ഥലമാണ് വെള്ളായണീനകത്ത് പ്രകൃതി രമണിയമായൊരു ആറുണ്ട് നല്ല നല്ല താമരകൾ അതുപോലേ താറാവുകൾ അതുപോലെ നല്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് വെള്ളം കിട്ടുന്നത് കുടിക്കാനുള്ള വെള്ളമൊക്കെ കിട്ടുന്നത് ഈ വെള്ളായണിപ്പുഴയിൽ നിന്നാണ് ഈ നമ്മൾ ഇവിടെ താമസിക്കുമ്പോൾ ഈ വെള്ളായണി പുഴേന്നുള്ള വെള്ളം പല സലങ്ങളിലേക്ക് ആയിട്ടും എടുത്തുകൊണ്ട് പോകുന്നതുണ്ട് ഫ്ലാറ്റ്കളിലേക്കും അതുപോലെ പല സലങ്ങളിലേക്കായിട്ട് വെള്ളത്തിന് ക്ഷാമം വരുമ്പോൾ അവിടെന്ന് വെള്ളമെടുത്ത് നല്ല വെള്ളമായത് കൊണ്ട് പലരും ഉപയോഗിക്കുന്നു അങ്ങനെയാവുമ്പോൾ പിന്നെ എല്ലായിതും വെച്ച് നോക്കുമ്പോൾ വെള്ളായണി മനോഹരമായ സ്ഥലമാണ് അനേകം താറാവുകൾ അവിടെയുണ്ട് നല്ല നല്ല മീൽസ് കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് കടന്ന് ചെല്ലുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഈ പാ പാറ പൊട്ടിക്കുന്ന സ്ഥലമൊന്ന് നല്ല എന്നാന്ന് ചോദിച്ചാൽ നല്ല നല്ല ഈ കാ കല്ലുകൾ വീട് വെക്കാനുള്ള കല്ലുകളൊക്കെ പറിക്കുന്ന സ്ഥലങ്ങളും നമ്മൾ ചുറ്റുപാടൊക്കെയുണ്ട് അതേപോലെ നല്ലനല്ല ഇത് വെള്ളായണി കാർഷിക കോളേജ് അത് അവിടെ അനേകം മക്കൾ വന്ന് കാർഷിക കോളേജിൽ വന്ന് പഠിക്കുന്നൊരു സ്ഥലമാണ് വെള്ളായണി കാർഷിക കോളേജ് അതിനോട് ചേർന്ന് സ്കൂളുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് കാർഷിക കോളേജിൽ പോയാൽ നല്ല വെ വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കിട്ടും അതുപോലെ ഈ വെള്ളായണി കായലിൽ നിന്ന് തന്നെ നല്ല നല്ല മീനുകൾ നമുക്കവിടെന്ന് കഴിക്കാൻ കിട്ടുന്നുണ്ട് അതുകൊണ്ട് വെള്ളായണി കായലും കാർഷിക കോളേജക്ക നല്ല നല്ല സ്ഥലങ്ങളാണ് നമ്മുടെ ഗ്രാമത്തിലുള്ളത് നമ്മുടെ ഗ്രാമത്തിലുള്ള ജനങ്ങളാണെങ്കിച്ചാൽ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആൾക്കാരാണ് പല രീതിയിലുള്ള ജോലിക്കായി കടന്ന് വന്ന് ജീവിക്കുന്ന വ്യക്തികളാണ് അല്ലാണ്ട് അവിടെയുള്ള ആളുകളൊക്കെ കുറവാണ് പക്ഷേ നമ്മൾ പുറത്തൂന്ന് വന്നുള്ളവരൊക്കെയാണെങ്കിൽ അനേകം സ്ഥലങ്ങളിൽ നിന്ന് വെച്ചാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ ഈ വെള്ളായണി വന്ന് താമസിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ താമസിക്കുമ്പോൾ തന്നെ പല ലാങ്വേജ് പല രീതീൽ സംഭാഷണമൊക്കെയാണ് നമുക്കവിടെ അനുഭവിക്കാൻ സാധിക്കുന്നത് ഈ പുറത്തെന്ന് വരുന്നവർ നല്ല ഡീസൻറ്റൊള്ള ആൾക്കാരാണ് ആത് വച്ച് നോക്കുമ്പോൾ കേ വെള്ളായണി നമുക്ക് നല്ലൊരു സ്ഥലമാണത് താമസിക്കാനുള്ള സ്ഥലം അതേപോലെ അവിടെ നിന്ന് കയറിന്ന് നോക്കിയാലെന്ന് പറഞ്ഞാൽ മൂക്കുന്നിമല അങ്ങനുള്ള സ്ഥലങ്ങളൊക്കെ കാണാം ഈ വെള്ളായണിയിൽ തന്നെ തൊട്ടടുത്ത് തന്നെ മൂന്ന് നാല് സ്കൂളുകളുണ്ട് നല്ല നല്ല സ്കൂള്കൾ ഇങ്ക്ളീഷ് മീഡ്യം സ്കൂള്കൾ സി ബി എസ് ഇ സ്കൂളുകൾ സർക്കാരിൻ്റെ സ്കൂള്കളുണ്ട് അത്പോലെ തന്നെ എഞ്ചിനീയറിങ് കോളേജ് പഠിക്കാൻ വരുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് ഈ എം ജീ കോളേജ് അതുപോലെ ഇവിടെത്തന്നെ വെള്ളായണി ഗ്രാമത്തിൽ എന്ന് പറയുമ്പോൾ പിന്നെ സ്പോർട്സിന് വേണ്ടീട്ടുള്ള ഒരിതുണ്ട് അതുപോലെ തന്നെ ഇവിടെ എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന കടകളുണ്ട് നല്ല നല്ല നല്ല നല്ല രാവിലെയൊക്കെ നല്ല കിളികൾ മയിലുകൾ അത് കുരങ്ങുകൾ ഇതെല്ലാം നമ്മുടെ വീടിൻറ്റവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നല്ല ഇതിന് മുകളിലേക്ക് കയറി നിന്നാൽ കടൽ കാണാനും കടലിലുള്ള ഓരോ ആൾക്കാരേം ക് ദൂരത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ നമ്മൾ താമസിക്കുന്നതിന്റെ അവിടെയാണ് ഈ സീറ്റ് ലൈറ്റ് ഈ ഫ്ലൈറ്റ് പോകുമ്പോൾ സീൻല് കൊടുക്കുന്നത് അവിടെ വന്നിട്ടാണ് ഈ ഫ്ലൈറ്റിൻ്റെ സീൻല് കിട്ടിയാൽ മാത്രമേ ഏയ്ർപ്പോട്ടിലേക്ക് ഈ ഫ്ലൈറ്റ് പോകുള്ളൂ നമ്മുടവിടുന്നൊക്കെ ഒരു ഒൻപത് കിലോമീറ്ററക്കെയേ എയർപ്പോട്ടിലെക്കുള്ള ദൂരമുള്ളു അ ഈ ഗ്രാമത്തിൻ്റെ ഒരു സൈഡാണ് വിഴിഞ്ഞം പ്രോജക്റ്റ് വന്നിരിക്കുന്നത് ഒരു അഞ്ച് ആറ് കിലോമീറ്റർനകത്ത് വിഴിഞ്ഞം പ്രോജക്റ്റിരിക്കുന്നു അപ്പം അങ്ങനെ എല്ലാ സൗകര്യങ്ങളും അത് പോലെ വലിയൊരു ഹൈ വേ നമ്മുടെ വിഴിഞ്ഞം പ്രോജക്റ്റായിട്ട് കടന്നു പോവുന്നുണ്ട് അതുപോലെ സിറ്റീലോട്ട് പോകാൻ നമുക്ക് ഏഴ് എട്ട് അല്ലെങ്കിൽ ഒൻപത് കിലോമീറ്റ്റക്കെ സിറ്റീലോട്ട് വരുന്നുള്ളു റയിൽ വേ സ്റ്റേഷനായാലും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻറ്റായാലും എല്ലാത്തിനും പറ്റിയൊരു സൗകര്യമുള്ള സ്ഥലമാണ് വെള്ളായണിയിൽ ഏത് സമയത്തും ബസ്സിന് സൗകര്യമുണ്ട് യാത്രയ്ക്ക് എങ്ങോട്ട് പോകാനുമുള്ള സൗകര്യമുണ്ട് ബ്ലോക്കിലൊന്നും പെടാതെ നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും അങ്ങനെയുള്ള സലങ്ങൾളക്കെയായ ഒരു സ്ഥലമാണ് ഈ ഗ്രാമം അവിടെ അനേകർ കടന്ന് വരുവാനും ജോലി കഴിഞ്ഞ് തിരിച്ച് അവർ തിരിച്ച് പോകാനുള്ളവരൊക്കെ ഉണ്ട് അങ്ങനുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഗ്രാമം അതുകൊണ്ട് എല്ലാവരെയും ആ ഗ്രാമത്തിലേക്ക് നമ്മൾ നിങ്ങളോരോരുത്തരേം ക്ഷണിക്കുന്ന് നിങ്ങളെല്ലാവരെയും അവിടത്തേക്ക് നമ്മൾ വിളിക്കുന്നു നിങ്ങളെ സാദരം സമ്പ്രതീക്ഷിക്കുന്നു